ഞങ്ങളുടെ പ്രദേശത്ത് ലഭ്യമായ പത്രങ്ങൾ എന്ന് പറയുന്നത് ദീപിക മലയാള മനോരമ മാതൃഭൂമി മംഗളം ദേശാഭിമാനി ഇവയൊക്കെയാണ് ഇപ്പോൾ എ ഞാനായിരിക്കുന്ന എൻ്റെ കുടുംബത്തില് ദീപിക പത്രമാണ് പക്ഷെ ഞാനായിരിക്കുന്ന ഓഫീസില് മലയാള മനോരമ ദീപിക മാതൃഭൂമി ദേശാഭിമാനി ഇങ്ങനെ മംഗളം ഇങ്ങനെ വിവിധ തലങ്ങളിലുള്ള പത്രങ്ങള് വരുത്തുന്നുണ്ട് വായനയ്ക്കായിട്ട് പ്രത്യേകമായിട്ട് നാം തെരഞ്ഞെടുക്കുന്നത് മരണപ്പെട്ടതാരൊക്കെയാണ് സ്പോർട്സില് ഇഷ്ടപ്പെട്ട താരങ്ങളാരെങ്കിലും വിജയിച്ചിട്ടുണ്ടോ പ്രധാനപ്പെട്ട വാർത്തകള് എന്താണ് മുഖപത്രത്തിൽ അതായത് ഫ്രണ്ട് പേജിലുള്ള വാർത്തകള് എന്തൊക്കെയാണ് അതൊക്കെയാണ് ഞാൻ സാധാരണ ശ്രദ്ധിക്കാറ്